നവജാത ശിശുക്കളെ സംരക്ഷിക്കാനായി നമുക്ക് മരുന്നുകളും കൊതുകു വലകളും ലോഷനുകളും ഉപയോഗിക്കാൻ സാധിക്കും അപ്പം അവർക്ക് നവജാത ശിശുക്കൾക്കാണ് അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യത ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കൊതുകുകടി മൂലമാണ് കൊതുകാണ് പല അസുഖത്തിൻ്റെയും വാഹകർ ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചത് പോലും കൊതുകുകടി മൂലമാണ് അതുകൊണ്ട് തന്നെ കൊതുക് മൂലമുള്ള ഒരു അസുഖവും നമ്മൾ നമ്മളുടെ നമ്മൾ നവജാത ശിശുക്കളിൽ മേൽ വരാൻ നമ്മൾ അനുവദിക്കരുത് അതുകൊണ്ട് തന്നെ കൊതുകു വലയും പിന്നെ കൊതുക് കടിക്കാനുള്ള കൊ കൊതുക് കടിക്കാൻ നിക്കാനുള്ള ലോഷനുകളും ഉപയോഗിക്കാം മാത്രമല്ല കെട്ടി കിടക്കുന്ന വെള്ളം അതെല്ലാം നമ്മുടെ ഗ്രഹ ഗ്രഹത്തിൻ്റെ പരിസരത്ത് നിന്ന് മാറ്റുക നവജാത ശിശുക്കൾക്കായി മരുന്നുകളും എല്ലാം അടുത്ത് തന്നെ വയ്ക്കുക അവർ കെടക്കുക കെടക്കുകയും ഇരിക്കുകയും അവരുമായി സമ്പർകം പുലർത്തുന്ന എന്തും ഇപ്പോൾ ഉദാഹരണത്തിന് കിടക്ക നന്നായി വിരി നന്നായി കഴുകി വിരിക്കുക അവര് ഉപയോഗിച്ച തലയണയും മറ്റും ഡ്രെസ്സുകളും എല്ലാം ചൂടുവെള്ളത്തിൽ കഴുകുക ഡിസിൻഫെക്റ്റന്റ് യൂസ് ചെയ്യുക മറ്റു കാര്യങ്ങളെല്ലാം നന്നായി നോക്കുക കുട്ടികൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി വൃത്തിയായി സൂക്ഷിക്കുക അവര് ഭു കഴിക്കുന്ന ഭക്ഷണം ആകട്ടെ അവര് പാ പാച അവർക്കായി പാകം ചെയ്യുന്ന അവര് കഴിക്കുന്ന ഭക്ഷണം ആകട്ടെ അവർക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന പ്ലെയ്റ്റുകളും കരണ്ടികളും മറ്റുമാവട്ടെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ വൃത്തിയായി സൂക്ഷിക്കുക നല്ല പോലെ കഴുകി ഉപയോഗിക്കുക അവരുടെ കുടിക്കുന്ന വെള്ളം നന്നായി ചൂടായി വെയ്ക്കാൻ ശ്രമിക്കുക നവജാത ശിശുക്കളിൽ അസുഖങ്ങൾ പെട്ടെന്ന് ഏൽക്കാൻ ചാ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മാസത്തിൽ രണ്ടു തവണെയെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോയി വാക്സിനേഷനും മരുന്നുകളും വാങ്ങുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുട്ടികളെ സംരക്ഷിക്കുക മാത്രമല്ല നവജാത ശിശുക്കൾക്ക് അസുഖങ്ങൾ വന്ന് അത് കുറെ കാലങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വയറ് സംബന്ധമായ ഉദര സംബന്ധമായ അസുഖകളാണ് അതിനായി നമുക്ക് ഭക്ഷണത്തിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൃത്തി മാത്രമല്ല നന്നായി വേവിച്ച് അവർക്ക് അവരുടെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് അവരുടെ ദഹന പ്രക്രിയയിലൂടെക്കെ നല്ല രീതിയിൽ തന്നെ ദഹിക്കാനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക ദഹിച്ച് പോ പോവാനുള്ള ഭക്ഷണം കുറച്ച് കൊടുക്കുക മാത്രമല്ല നവജാത ശിശു നവജാത ശിശുക്കളുടെ വിസർജ്യങ്ങൾ വിസർജ്ജിച്ച മറ്റ് തുണിയായാലും മറ്റ് സ്നഗ്ഗികൾ പോലുള്ള പ്രൊഡക്റ്റ്സ് ആയാലും എല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ കളയുക മറ്റുള്ളവർക്ക് ശല്യമാവാതെ മറ്റുള്ളവർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ വരുത്താതെ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യുക പിന്നെ അവര് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയായി സൂക്ഷിക്കുക ഡിസിൻഫെക്റ്റന്റ് കൊണ്ട് മാത്രം കൈ കഴുകി മാത്രം കുട്ടികളെ തൊടുക അത് കുട്ടികളെ വൈറസുകളെ കൊഞ്ചുമ്പോൾ അവ നമ്മുടെ ഉമിനീരോ അല്ലെങ്കിൽ കയ്യിലെ മറ്റു ബാക്ടീരികളോ അവരുടെ മേ അവരുടെ മേൽ പോവാതെ സൂക്ഷിക്കുക